താങ്കളുടെ തൊഴിൽ മേഖല ഏതാണ് തൊഴിൽ മേഖലയിൽ ഏതേലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ വെല്ലുവിളികളോ നേരിടുന്നുണ്ടോ എൻ്റെ തൊഴിൽ മേഖലയെന്ന് പറഞ്ഞു കഴിഞ്ഞത് ഒരു വർഷോപ്

ഞാൻ ഒരൂ വെൽഡർ ആയിട്ടൊക്കെ ജോലി ചെയ്യുന്നു പത്ത് ഇയ്യ് ഇരുപത് ഇരുപത്തി രണ്ട് വർഷത്തോളമായിട്ട് ഈ ജോലികൾ കണ്ടിന്യു ചെയ്യുന്നു ഈ മേഖലയിലുള്ളതെന്നാൽ ഈ തൊഴിൽ മേഖലയിലുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ ശരിയായ രീതിയിൽ ജോലി ചെയ്തു കൊടുത്താൽ പോലും ശരിയായ രീതി അതിന് അർഹിക്കുന്നതായിട്ടുള്ള ശമ്പള വരവ് ഒരു ഇതില്ല തരുന്നില്ല എന്ന് വേണം പറയാനായിട്ട് നമ്മൾ രാവും പകലും ഓവർ ടൈം ചെയ്താൽ തന്നെ സാധാരണ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നൈറ്റിലൊക്കെ ജോലി ചെയ്തു കഴിഞ്ഞെന്നാൽ അതിന് ഫുഡ് അലവൻസസും യൂറോപ്യൻ കണ്ട്രീകളിലൊക്കെ ആണെങ്കിൽ അതിന് ഓവർ ടൈം കൊടുക്കും അത് ഫുഡ് അലവൻസ് അല്ലെങ്കിൽ അതിന് ഡബിൾ ഡബിൾ ഒരു മണിക്കൂർ ചെയ്താൽ രണ്ട് മണിക്കൂറിൻ്റെ ഇത് തരും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തൊക്കെ വരുന്നതാണ് പിന്നെ ഉള്ളത് തൊഴിൽ മേഖലയിലുള്ളതെന്ന് വച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ചൂട് സമയം ആവുമ്പോൾ ചിലപ്പോൾ ചില ഹൈറ്റുകളിലൊക്കെ കേറി ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇരുമ്പ് പഴുത്ത് കഴിയുമ്പോൾ ചൂടായിക്കഴിയുമ്പോൾ നമുക്കാകെ ഗ്ലൗസിട്ടാൽ തന്നെ നമ്മുടെ കൈ പൊള്ളുന്ന ഒരു രീതിയിലുള്ള ഒരു കണ്ടീഷൻ ഉണ്ട് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ തൊഴിലില്ലാതെ പിന്നെ ഏറ്റവും വലിയ റിസ്ക് പിടിച്ച ഒരു ഫീൽഡാണ് ഈ ഫീൽഡ് കരണ്ട് സംബന്ധമായിട്ടുള്ള ഒരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇത്പോലെ ഓരോ ഓരോ ഓരോ മിനിറ്റുകളും ഓരോ വർക്കുകൾ ചെയ്യുമ്പോഴും ഓരോ അത് കൈകാര്യം ചെയ്യുന്നതും ഒക്കെ മെഷീൻ ഉപയോഗിക്കുന്നതാണെങ്കിലും കൊള്ളാം അത് കൈകാര്യം ചെയ്യുന്നതാണെങ്കിലും കൊള്ളാം എല്ലാം വളരെ സൂക്ഷിച്ച് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷനാണ് ഈ വർഷോപ് ഫീൽഡെന്ന് പറയുന്നത് ഞാൻ ഒരു വെൽഡർ ആയത് കൊണ്ട് എനിക്ക് അത് പല ടൈപ്പിലുള്ള വെൽഡിങ്ങും കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് പല ടെക്നോളജി ഉണ്ട് പല ടെക്നോളജിയിലുള്ള വെൽഡിങ്ങും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതുമല്ല ഞാൻ അത് ട്രൈ എക്സ്പീരിയൻസ് ഉള്ളതെന്ന് ഇപ്പം പ്രാക്റ്റീ പഠിച്ചത് കൊണ്ട് എക്സ്പീരിയൻസും ഉണ്ടൊരു പത്ത് ഇരുപത്തി നാല് വർഷത്തെ പത്ത് പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസുള്ള ഒരാൾ ആണ് ഞാൻ പക്ഷെ ഇതിന് ഒക്കെ ഒരൂ ബെനിഫിറ്റ് ബെനിഫിറ്റെന്ന് വച്ചാൽ അതിനുള്ള സാലറി നമുക്ക് തരുന്നില്ല നമ്മുടെ നാട്ടിൽ അതാണ് സ്കിൽഡായിട്ടുള്ള ഒരു എമ്പ്ലോയിക്ക് അതിന് അതിനനുസരിച്ചുള്ള ഒരു സാലറിയോ കാര്യങ്ങളോ ഇല്ല ഒന്നും അറിയാൻ മേലാത്തവർക്കും കൊടുക്കുന്നുണ്ട് ആയിരം രൂപ അല്ലെങ്കിൽ ആ അതിനല്ലെങ്കിൽ തൊള്ളായിരം രൂപ ആയിരത്തി എഴുന്നൂറ് രൂപ ഈ റേഞ്ചൊക്കെ എന്നാൽ ചില സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം അല്ലേ എന്ന് വച്ച് സ്ഥിരമായിട്ട് ഒരു പ്രസ്ഥാനത്തിന് അവർ യൂണിറ്റിനകത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ അവർ നമ്മളെ ചൂഷണം ചെയ്യുകയാണ് പക്ഷെ അതിന് അനുസരിച്ചുള്ള ബെനിഫിറ്റുകൾ അവർ നമക്ക് തരുന്നൊന്നുമില്ല പക്ഷെ അതിനുള്ള ഇതൊന്നും നോക്കുന്നില്ല അതിന് ഫെസ്റ്റിവൽ വന്നാൽ പോലും അതിനുള്ള ഒരു ഒരു ഗിഫ്റ്റായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇതിനകത്ത് പിന്നെ ജോലി ചെയ്യണം ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് വച്ച് കൊണ്ട് നമ്മൾ ഈ വർക്കുമായിട്ട് കണ്ടിന്യു ചെയ്തു പോവുന്നു ഇതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു കാര്യങ്ങൾ നടക്കുന്നു എല്ലാം ഇങ്ങനെ നടക്കുന്നു നേരത്തെ ഒക്കെ ആണെങ്കിൽ ഈ എസ് ഐയും മറ്റ് കാര്യങ്ങളും നല്ല സ്റ്റാൻ്റെഡ് ആയിട്ടുള്ള കമ്പനികളിൽ കിട്ടുമായിരുന്നു ചെറുകിട വർക് ഷോപ്പുകളിലോ മറ്റു കാര്യങ്ങളിലോ പോയി കഴിഞ്ഞന്നാൽ നമ്മൾക്ക് കിട്ടത്തില്ല അത് അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങളുമൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ഒത്തിരി പറഞ്ഞു കഴിയുന്നത് പിന്നെ ഇതിനെ ഡിപ്പെൻ്റ് ചെയ്ത് ഈ മിഷിനറി ഉപയോഗിക്കുമ്പോൾ നമ്മൾ വെൽഡിങ് സെറ്റ് മാത്രമല്ല ആങ്കിൾ ഗ്രേയ്ൻ്ററുകൾ ഹാൻറ്റ് ഗട്ടറ് പ്ലാസ്മ കട്ടിങ്ങ് അതിൻ്റെ പല രീതിയിലുള്ള വർക്കുകളും നമ്മൾ ചെയ്തു നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് പക്ഷെ അതിന് തക്ക ഉള്ളൊരു ലിമിറ്റ് ഇത്ര സ്കിൽഡായിട്ടുള്ള ഒരു എമ്പ്ലോയിക്ക് അതിനുള്ള ഒരു ബെനിഫിറ്റൊന്നും തരുന്നില്ല ഫിറ്റിങ്സാണെങ്കിലും ഫാബ്രിക്കേഷൻ വരും ഫാബ്രിക്കേറ്റർക്ക് കൊടുക്കും ഫാബ്രിക്കേഷൻ നമ്മുടെ സ്പീഡിൽ ചെയ്യുന്ന ഫാബ്രിക്കേറ്റർ കം വെൽഡറാണ് നമ്മൾ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റുകളൊന്നും കിട്ടുക കിട്ടാറില്ല പിന്നെ വീടിനടുത്തുള്ള ഒരു ജോലി ആയത് കൊണ്ട് നമുക്ക് നടന്ന് പോകാവുന്ന ദൂരമേ ഉള്ളൂ എന്നുള്ളത് വച്ച് കൊണ്ട് നമ്മൾ ആ ജോലി കണ്ടിന്യൂ ചെയ്ത് പോവുന്നു ഫുഡ്ഡാണെന്ന് പറഞ്ഞാലും ഉച്ചയ്ക്ക് വന്ന് കഴിക്കാം അങ്ങനെ ഒക്കെയുള്ള ബെനിഫിറ്റുകളുണ്ട് അല്ലാതൊന്നുമില്ല അതിനകത്ത്